ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിക്നിക്കിന് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് എനിക്ക് അതായത് ഈ കുന്നുകള് മലകള് അങ്ങനെള്ള സ്ഥലത്തൊക്കെ കയറി പോകാനാണ് ഭയങ്കര ഇഷ്ടം കാരണം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പോ കുന്നിൻ്റെ മലകളില് ഒക്കെ പോയിട്ട് അതായത് ഇപ്പം ഇപ്പോൾ മലേൻ്റെ മുകളിലുള്ള അമ്പലങ്ങള് ചെറിയ അമ്പലങ്ങള് പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇപ്പോൾ കുന്നിൻ്റെ മുകളിലൊക്കെ കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ ആയിട്ട് താഴോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും അതായത് നമ്മുടെ അതായത് നമ്മളെ ചുറ്റിലും ഇപ്പം എനിക്ക് എനിക്ക് അങ്ങനെ ഒക്കെ കയറി നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു മൈൻഡ് ആണ് വരിക നമ്മളെ ചുറ്റിലും ഈ ലോകം അതായത് ഈ ഒരു സ്ഥലം മുഴുവനും നമ്മുടെ ചുറ്റിലാണല്ലോ കറങ്ങി നിൽക്കുന്നത് എന്നുള്ള ആ ഒരു മൈൻഡ് ആയിരിക്കും പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതായത് കാടുകളൊക്കെ കേറിട്ടായിരിക്കും കുന്നിൻ്റെ മേലെ കുന്നും മല മുകളിലേക്ക് ഒക്കെ എത്തുന്നത് അപ്പം എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് ഒരുപാട് തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാനും ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോടൊക്കെ സംസാരിച്ച് ഒരുപാട് നടക്കാനുള്ളൊരു ടൈമും കാര്യങ്ങളൊക്കെ ഇണ്ടാവും നമുക്ക് ശുദ്ധവായു ഒക്കെ കൊണ്ടിട്ട് ഇപ്പോൾ നമ്മള് വണ്ടിയില് കയറി ഇരുന്നിട്ട് ഇങ്ങനെ കുറെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രസം ഉണ്ടാകുല്ലല്ലോ അപ്പം നമ്മളെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് വർത്താനം പറഞ്ഞു കുന്നിൻ്റെ മുകളിലൊക്കെ കയറി കാഴ്ചകളൊക്കെ കാണാൻ നല്ലൊരു രസം തന്നെയാണ്